ഞാൻ കൃഷി ചെയ്യുന്നത് ചീരക്കൃഷിയുണ്ട് പയറുണ്ട് പിന്നെ വാഴയുണ്ട് അപ്പോൾ ഞാൻ ഈ കൃഷി ചെയ്യുന്നതിന്റെ എന്റെ വീടിന്റെ തൊട്ട് പുറകിലുള്ള പറമ്പിൽ തന്നെയാണ് ചെയ്യുന്നത് അതിന് ജൈവവളങ്ങൾ അങ്ങനെ ചേർക്കാറില്ല നമ്മുടെ വീടുകളിൽ കിട്ടുന്ന ചാണകവും ആട്ടിൻകാട്ടവും പിന്നെ നമ്മുടെ കരിയിലകൾ ഏത്തക്കയൊക്കെ പൊളിച്ചതിന്റെ തൊലികൾ ഇവയെല്ലാമാണ് ഞാനതിനകത്ത് വളമായിട്ട് ചേര്ക്കുന്നത് പിന്നെ തേയിലമട്ട് അങ്ങനെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതികളിലാണ് ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത് എനിക്ക് സാമാന്യം നല്ല രീതിയിൽ വിളകൾ കിട്ടുന്നും ഉണ്ട് പിന്നെ ഞാനിത് വില്ക്കുന്നത് നമ്മുടെ ഈ തൊഴിലുറപ്പുകാര്ക്ക് പിന്നെ അവര്ക്ക് ആവശ്യമായി വരുമ്പോഴത്തേക്കും അവർ അവർ വന്നെടുക്കുകയും ചെയ്യും പിന്നെ അതുപോലെ നമ്മുടെ കുടുംബശ്രീയുടെ ഒക്കെ ഓണച്ചന്ത വരുമ്പം ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങളോട് മുന്കൂട്ടി തന്നെ പറയും നിങ്ങൾക്കുള്ള വിളകൾ നിങ്ങൾ പേരൊക്കെ എഴുതി നിങ്ങൾ ഇവിടെ കൊണ്ടുത്തരണം അപ്പോൾ നമ്മൾ ആ ഓണച്ചന്ത മൂന്നു ദിവസത്തേക്ക് ആണ് നമ്മുടെ വെക്കുന്നത് പിന്നെ പഞ്ചായത്ത് ഹാളിൽ ഇങ്ങനെ വില്പനയ്ക്ക് വെക്കാറുണ്ട് അതുകൂടാതെ നമ്മുടെ വീടുകളിൽ വന്ന് ഒരുപാട് ആൾക്കാർ നമ്മളോട് വാങ്ങിക്കാറുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവെന്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ചേച്ചി നാളത്തേക്ക് ഇത്ര ഇത്ര കിലോ വേണം എന്ന് പറയുമ്പം നമ്മളത് മുൻകൂട്ടി പറഞ്ഞു ഓര്ഡര് തരുന്നതുകൊണ്ട് ആ സമയത്തേക്ക് അതിനെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നു പറഞ്ഞ് എന്നിരുന്നാലും ഈ ചീരക്കൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല എന്നിരുന്നാലും നമുക്ക് ആ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ നമ്മൾ പത്ത് വീട്ടുകാരോട് പറഞ്ഞു കഴിയുമ്പം അവരു വന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഓണച്ചന്ത വരുമ്പം അവിടേയും വില്പനയ്ക്ക് വെക്കാന് പറ്റുന്നതുകൊണ്ട് അവിടെനിന്നും നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വെള്ളപ്പൊക്കം എന്നൊരു ഭീഷണി മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൂ അങ്ങനെ വരുമ്പം നമുക്ക് നമ്മുടെ കൃഷിയെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട് കുറേ ഒക്കെ നശിച്ചു പോകാറുണ്ട് എന്നിരുന്നാലും ഉള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനും അതില് നിന്നും നല്ല വിളകൾ എടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ കമ്പോളങ്ങളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മുടെ ഓണച്ചന്തയാണ് അത് നമ്മുടെ കുടുംബശ്രീപരമായിട്ട് അവർ തരുന്ന ആ ഒരു ഓണ വിപണിയെന്ന് പറഞ്ഞുള്ള മേളകളിലും പിന്നെ പഞ്ചായത്ത് ഹാളിലും പിന്നെ നമ്മുടെ വീടുകളിലും വന്നാണ് നമുക്കിത് വിൽക്കാനായിട്ട് സാധിക്കുന്നത്